സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ നൃത്തം പരിശീലിക്കുമ്പോൾ കുറേ ബെനിഫിറ്റ്സ് നമുക്കുണ്ട് നമ്മൾക്ക് പോയിവരവ് നടക്കില്ലെങ്കിൽ നമുക്കിതിലൂടെ കണ്ടുപഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗമാണ് ഉണ്ടാവുക നൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും ഓരോ സ്റ്റെപ്പും നമുക്ക് പിന്നെയും പിന്നെയും കണ്ടു പഠിക്കാൻ സാധിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ നമുക്ക് എങ്ങനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാം എന്ന് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കഴിയും നൃത്തം നൃത്തം നൃത്തം നമ്മൾക്ക് വളരേ ഒരു ബെനഫിറ്റാണ് കാരണം നൃത്തം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്നത് വളരേ ബെനഫിറ്റാണ് പോയി വരവ് ചെലപ്പോൾ ബസ്സില്ലായ്മ അങ്ങനെ കുറേ പ്രോബ്ലംസുണ്ടെങ്കിലും നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് അതൊക്കെ മാറ്റിവച്ച് നിൽക്കാൻ കഴിയും അതിൽ നിന്ന് നമുക്ക് നമുക്കൊരു സമയം കണ്ടുപിടിച്ച് അതിനായ് ഒരു സമയം കണ്ടുപിടിച്ചു നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് ഉപയോഗമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൃത്തം പരിശീലിക്കുന്നത്